ആ ചേട്ടാ എന്തൊക്കെ പൂക്കളാണ് അവിടെ ഉള്ളത് ഇതൊക്ക ഫ്രഷാണോ താമര ഒരുകിലോ എന്താ റേറ്റ് വരിക ചേട്ടാ ഞങ്ങക്കൊരു പത്തുകിലോ ഒന്നിച്ചുവേണം താമര അതോ ഓരോന്നിനാണല്ലേ റേറ്റ് താമരയ്ക്ക് ഓക്കേ ചെറിയ റോസ് കിലോ കണക്കിനല്ലേ ചേട്ടാ വാങ്ങണത് ആ അപ്പോൾ ഞങ്ങക്കൊരു അൻ ആ ഓക്കേ ഞങ്ങൾക്ക് അപ്പോൾ വലിയൊരു പൂക്കളം ഇടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ കുറച്ച് അധികം ആ അപ്പോൾ കുറച്ചധികം പൂക്കളും ആവശ്യമുണ്ട് അപ്പോൾ എങ്ങനെയാണ് ബ കുറച്ച് റേറ്റൊക്കെ ഡിസ്കൗണ്ടോക്കെ വിട്ടുതരില്ലേ ഇതെന്താ ചേട്ടാ ചില പൂക്കളൊക്കെ ഒരു വാട്ടമുണ്ടല്ലോ എനിക്കൊരു പത്തുകിലോ ഓറഞ്ച് ചെണ്ടുമല്ലി വേണം പിന്നൊരു പത്തുകിലോ മഞ്ഞ ചെണ്ടുമല്ലീയും വേണം ഇത് കിലോ എന്താ വരുന്നത് രണ്ട് കവറിനും കുറച്ച് അധികം വാരിയിട് ചേട്ടാ പിന്നെ ആ വാടമല്ലിയും വേണം ഒരു അഞ്ചുകിലോ മതി നൂറു രൂപയാണോ ചേട്ടാ കുറവ് ആ ശരി ഒരു അഞ്ചു കിലോ മതി എന്നാല് ആ പിന്നെ താമര നല്ല വലുത് നോക്കിയിട്ട് ഒരു രണ്ടെണ്ണം വെച്ചാൽ മതി ആ രണ്ടെണ്ണം മതി അയ്യോ ഇവിടെ നല്ല വിലയാണ് അമ്പത്തഞ്ച് രൂപ ഞങ്ങള് വരുമ്പോൾ അപ്പുറത്തെ കടയിൽ ചോദിച്ചപ്പോൾ അവിടെ അമ്പത് രൂപയേ ഉള്ളുന്നാണ് പറഞ്ഞത് പക്ഷെ കാണുമ്പോൾ രണ്ടും ഒരുപോലെ തന്നെയാണ് ഉള്ളത് ഒന്ന് കുറച്ച് ആ ശരി ചേട്ടാ രണ്ടെണ്ണം മതി

അരളി പൂ ഇല്ലേ ആ അരളിപ്പൂവ് വേണം റോസ് മതി അത് ഒരു പത്തുകിലോ അത് എന്താ കിലോ വില നൂറ്റമ്പത് രൂപയോ ശരി അതൊരു പത്തു കിലോ എടുത്തോളൂ അത് വെള്ളയും ഉണ്ട് വെള്ളയും ഒരു പത്തുകിലോ എടുത്തോളൂ രണ്ടും ആ പത്തുകിലോ വീതം തെച്ചി വേണ്ട ആ ചൊവ ആ ചെറിയ റോസാപ്പൂ ഇല്ലേ അത് ഒരു അഞ്ച് കിലോ ആ ആ അത് എന്താ കിലോ വില വരുന്നത് ആ അങ്ങനയാണെങ്കിൽ അതൊരു ഏഴു കിലോ എടുക്കാം ഇതിപ്പോൾ മൊത്തം എത്രയായതെന്ന് കണക്കാക്കി പറയാൻ പറ്റുമോ എന്നിട്ട് ഞങ്ങളുടെ കയ്യിലുള്ള കാശിനനുസരിച്ചു പിന്നെ നോക്കാന്ന് വച്ചിട്ടാണ് ഞങ്ങള് കുടംബശ്രീ വകയായിട്ട് വരുന്നതാണെ ഓ ഡിസ്കൗണ്ടോന്നും ഇല്ലേ ഓ ഈ അയ്യായിരം രൂപക്കൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഒരു നൂറ് രൂപയാണോ ഡിസ്കൗണ്ട് തരുന്നത് ആ ഓക്കേ പിന്നെ വേറെ ഏതൊക്കെയാ പൂക്കളുള്ളത് വെള്ള പിച്ചകം ഉണ്ട് അത് വേണ്ട ആ പിച്ചക പൂ വെള്ള അത് പെട്ടന്ന് വാടിപ്പോകും ചേട്ടാ അത് ഞങ്ങള് കുറെ ആൾക്കാര് ചേർന്ന് ഇടുമ്പോൾ ഉച്ചയാവും എന്തായാലും എല്ലാവരും വന്നൊക്കെ തുടങ്ങുമ്പോൾ അപ്പോൾ ആ സമയാവുമ്പോത്തേക്കും അത് വാടിപ്പോകാൻ തുടങ്ങും നാടൻ പൂവുണ്ട് അതൊക്കെ നമുക്ക് ചുറ്റുവട്ടങ്ങളിൽ നിന്ന് പെറുക്കി എടുക്കാവുന്നതല്ലേ അതൊന്നും വേണ്ട ഇങ്ങനെ മ് മാർക്കെറ്റില് വന്നിട്ട് അവൈലബിളായിട്ടുള്ളത് നോക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങള് വന്നതാണ് ജമന്തി മഞ്ഞയാണോ ഉള്ളത് വെള്ളയാണോ നമ്മുക്ക് മഞ്ഞ എടുക്കാം ചേട്ടാ ഒരു അഞ്ചുകിലോ അതെന്താ വില വരുന്നത് അങ്ങനെയാണെങ്കിൽ എന്നാൽ അത് ഒരു രണ്ടും രണ്ട് കളറും വെള്ളയും മഞ്ഞയും ഒരു അഞ്ചു കിലോ അഞ്ചു കിലോ വീതം എടുക്കാം മ് പിന്നെ വലിയ റോസാപ്പൂവില്ലേ വലുത് ആ ആ വലു ഇരുപതു രൂപയോ അങ്ങനെയാണെങ്കിൽ അതൊരു അഞ്ചെണ്ണം എടുക്കാം ആ മതി തലയില് വെക്കാനൊന്നും വേണ്ട പൂക്കളത്തിന് ചുറ്റും വെക്കാൻ വേണ്ടീട്ടാ ആ മതി മുല്ലപ്പൂ വേണ്ട അത് ഞങ്ങള് ഇതിപ്പോൾ തലേദിവസം അല്ലേ നാളെ നോക്കാം ഞങ്ങള് മ് ആ മതി